വലിയ പ്രേക്ഷകവൃത്തത്തെ ആകര്ഷിക്കുന്ന കേരളത്തിലെ ഒരു പ്രധാന നൃത്തോത്സവമാണ് തെയ്യം തെയ്യം ഉത്സവം തെയ്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഒരു എന്താ പറയുക ഒരു ഒരു ഉത്സവ കലയാണ് അതുപോലെ തന്നെയാണ് ക്രിസ്തുമസും ക്രിസ്തുമസിന് നമുക്ക് എന്താ പറയുക ക്രിസ്ത്യാനിളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു വലിയ ഒരു ജന്മ ജനനത്തിന്റെ ദിവസമാണ് അപ്പം രാത്രിയില് പള്ളിയില് പോകലും പിന്നെ കേക്ക് മുറിക്കലും കരോളും ക്രിസ്മസ് അപ്പൂപ്പനോക്കെയായിട്ട് എല്ലാം അടിപൊളിയായിരിക്കും വിരുന്നുകാരൊക്കെ വന്ന് നല്ല അടിപൊളി ഫുഡോക്കെ ഉണ്ടാക്കി നോമ്പൊക്കെ തുറന്ന് നല്ല രസത്തിലായിരിക്കും ക്രിസ്മസിന് സ്റ്റാറൊക്കെ തൂക്കി ഇരുപത്തഞ്ച് ദിവസം മുന്നേ നോമ്പൊക്കെ എടുത്ത് സ്റ്റാറൊക്കെ തൂക്കി പിന്നെ രണ്ടു ദിവസം മുന്നേ ക്രിസ്മസിന് രണ്ടു ദിവസം മുന്നേ പുല്ക്കൂടൊക്കെ ഉണ്ടാക്കി ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുന്നത് ക്രിസ്മസെന്ന് പറഞ്ഞാൽ തന്നെയൊരു കേക്കും ക്രിസ്മസ് അപ്പൂപ്പനും ഫുള്ളൊരു ചുവപ്പ് വെള്ള മയമായിരിക്കും അതുപോലെ തന്നെ കേരളത്തിലൊരു പ്രധാന ഒരു ഉത്സവമാണ് ഓണം ഓണം എന്നു വെച്ചാൽ ഒരു കേ കേരളത്തിന്റെ ഒരു പൊതുവായ ഒരു ഉത്സവമാണ് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഇതുംകൂടിയാണ് ഓണം എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചും പിന്നെ പായസമൊക്കെ കുടിച്ചും ഓണക്കളികളൊക്കെ കളിച്ചും തിരുവാതിര തുടങ്ങിയ കളികളൊക്കെ സ്പൂണ് റെയിസ് തുടങ്ങിയ കളികളൊക്കെ കളിച്ചോക്കെ എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയമാണ് ഓണം ഓണവും ക്രിസ്തുമസും തെയ്യം ഉത്സവം തുടങ്ങിയവയെല്ലാം നമ്മുടെ നമ്മുടെ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ക്ലാസിക്കല് ഡാന്സ് നാടോടി നൃത്തം സമകാലികം ആയിട്ടുള്ള ഇവയൊക്കെ നമ്മുടെ ഒരു കേരളത്തിലെ പ്രധാന നൃത്തോത്സവങ്ങളാണ് ക്രിസ്മസും ഓണമൊക്കെ ഒരു എല്ലാവരും ആഘോഷിക്കുന്ന ഒന്ന് കൂടിയാണ് അപ്പോൾ എല്ലാവര്ക്കും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണവും ക്രിസ്മസൊക്കെ ഓണത്തിന് മാവേലി വരുന്നതും പത്ത് ദിവസം പൂക്കളമിടുന്നതും പിന്നെ രാവിലെ എണീറ്റ് പൂവൊക്കെ പറിച്ച് എന്നും പൂക്കളമിടുന്നതും ഒക്കെ എല്ലാവര് എല്ലാവര്ക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ സദ്യ ഉണ്ടാക്കലും പുതിയ ഓണക്കോടി എടു എടുക്കലും അതുപോലെ സദ്യ കഴിക്കലും ഒക്കെ എല്ലാവര്ക്കും ഭയങ്കര ഇഷ്ടാവാണ് അതുപോലെ തന്നെയാണ് ക്രിസ്മസിനും പിന്നെ തെയ്യമായാലും എല്ലാം കേരളത്തിലെ കേരളക്കാര് കൊണ്ടാടുന്ന ഉത്സവങ്ങളാണ് ഇവയെല്ലാം എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളുകൂടിയാണിവ എല്ലാവര്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഉത്സവങ്ങളുകൂടിയാണി ഓണവും ക്രിസ്മസുമെല്ലാം അതുപോലെ തന്നെയാണ് ക്ലാസിക്കല് ഡാന്സും നാടോടിനൃത്തം ഇവയെല്ലാം എല്ലാവര്ക്കും കേരളക്കാര്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഓരോരൊ പരിപാടികളാണ് ക്രിസ്മസിനാണെങ്കിൽ തന്നെ എന്താ പറയുക ക്രിസ്മസ് അപ്പൂപ്പന് വരലും കരോളും സ്റ്റാറു തൂക്കലൊക്കെയായിട്ട് എല്ലാവര്ക്കും ഭയങ്കര സന്തോഷമാണ് ഓണമാണെങ്കിൽ തന്നെ പൂക്കളൊക്കെ ഇടലും സദ്യ ഒരുക്കലും ഒക്കെയായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പം വലിയ പ്രേക്ഷകവൃത്തത്തെ ആകര്ഷിക്കുന്ന കേരളത്തിലെ പ്രധാന സംഗീത നൃത്തോത്സവങ്ങളാണ് ഓണവും തെയ്യം ഉത്സവും ക്രിസ്തുമസും